ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഒരാളിലേക്ക് എത്തിക്കുകയെന്നുള്ളത് ഏറ്റവും നല്ലൊരു ഇതാണ് അഡ്വൈസ്മെന്റ് പരസ്യം പരസ്യം മുഖേനയാണ് എല്ലാരിലേക്കും എത്തിക്കാൻ പറ്റും ഒരു പരസ്യത്തിലാകൃഷ്ടരായി പരസ്യത്തിൽ പറയുന്ന ആ കാര്യങ്ങൾ വിശ്വസിച്ചാണ് എല്ലാവരും അങ്ങനെ ചെയ്യാറ് അപ്പം എന്ത് കൊണ്ടും ഉചിതം നമുക്ക് പരസ്യം പരസ്യത്തിൽ കൂടി ഇതാക്കുന്നതാണെനിക്ക് തോന്നുന്നു അതാണതിൻ്റെ ഒരു ഇതെന്ന് പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല എനിക്കിഷ്ടമായിട്ടുള്ള പരസ്യം എന്നെ പിന്നെ നമ്മളിലേക്ക് എല്ലാവരിലേക്കും എത്തിക്കാൻ പറ്റുന്നൊരു പരസ്യമായിട്ട് എനിക്ക് തോന്നിയതാണ് കല്യാൺ സിൽക്സിൻ്റെ പരസ്യം ദുൽക്കറും അനിഖയൊക്കെ അഭിനയിച്ച അവരുടെ ആ ഒരു പിന്നെ അവർ എല്ലാരിലേക്ക് എത്തിക്കാൻ പെടുന്ന ഒരു ഇതുണ്ടല്ലോ ജോ ആലുക്കാസ് മലബാർ ഗോൾഡ് അതിൻ്റെയൊക്കെ പരസ്യത്തിൽ വലിയ വലിയ സിനിമ നടിമാർ നടന്മാരുമാണ് അഭിനയിച്ചത് അപ്പം അത് എല്ലാരിലേക്ക് എത്തിക്കാൻ അവർക്ക് പറ്റുന്നു എന്നുള്ളതാണ് ഒരു വാസ്തവം അപ്പം അത് കണ്ടിട്ട് അവരുടെ ഫാൻസും പിന്നെ മ ഫാൻസ് വാങ്ങുന്നു അത് കണ്ട് ആ വേറൊരാളോട് പറഞ്ഞ് അവർ വാങ്ങുന്നു അതാണല്ലോ പരസ്യത്തിൽ കൂടി അവരുദ്ദേശിക്കുന്നത്